ഹലോ ഹലോ അതെയല്ലോ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഉണ്ടോ ആണോ അപ്പം മെമ്പർഷിപ്പ് ആദ്യമെടുക്കണം അത് കഴിഞ്ഞിട്ടേ ബുക്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം മെമ്പർഷിപ്പ് എടുക്കാന് വേണ്ടി ആദ്യം മെമ്പർഷിപ്പെടുക്കാൻ വേണ്ടി ആദ്യം ഇരുന്നൂറ് രൂപ വെച്ച് ഇരുന്നൂറ് രൂപയടച്ച് രജിസ്റ്റര് ചെയ്യണം അതുകഴിഞ്ഞിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ വെച്ച് രജിസ്റ്റര് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പേര് ഫോൺ നമ്പര് അഡ്രസ് മുതലായ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്ന ഇവിടെ ചോദിക്കുന്ന കാര്യങ്ങള് വെച്ചിട്ട് പതുക്കെ രജിസ്റ്റര് ചെയ്യണം അതുകഴിഞ്ഞിട്ട് ആണ് ബുക്കെടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ആ പിന്നെ കാലാവധി ഒരു ഒന്ന് രജിസ്റ്റര് ചെയ്തിട്ട് നമ്മള് ഒരു പുസ്തകം ആദ്യം നമുക്ക് ടോട്ടല് അഞ്ച് പുസ്തകമെടുക്കാം ആ ഒറ്റ ടൈമില് ആ അഞ്ച് പുസ്തകമേ എടുക്കാന് പറ്റുകയുള്ളൂ അതില് കൂടുതല് നമുക്കെടുക്കാൻ അനുവദിക്കുന്നില്ല പിന്നെ ആ ആ ആ അതിലൊരു ബുക്ക് എടുത്ത് ഒരു ബുക്ക് എടുത്താലും ഒരു ബുക്ക് എടുത്ത് അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിട്ടേൺ വെയ്ക്കണം പിന്നെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ആ ഇത് പിന്നെയും തരുന്നതായിരിക്കും കേട്ടോ ആ

മെമ്പർഷിപ്പ് രണ്ട് വർഷം വാലിഡിറ്റി

ഫൈന് ഒരു ദിവസം പത്ത് രൂപ വെച്ച് അതായത് നമ്മള് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം പത്ത് രുപ വെച്ച് ഫൈൻ വരുന്നതായിരിക്കും കണ്ണശ്ശ രാമായണം കണ്ണശ്ശ രാമായണം ടെക്സ്റ്റിവിടെ ഇരിപ്പില്ലെന്ന് തോന്നുന്നു ആരോ എടുത്തുകൊണ്ടുപോയി നമുക്കൊന്ന് ചെക്ക് ചെയ്തുനോക്കിയിട്ട് പറയാം ആ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് വേണമായിരുന്നോ

ലീലാതിലകം റഫറൻസ് ചെയ്യാനിരിപ്പുണ്ട് ആ ലീലാതിലകം നമുക്കിവിടെ സ്റ്റോക്ക് രണ്ട് മൂന്ന് ടെക്സ്റ്റ് നമുക്ക് അവൈലബിളായിട്ടുണ്ട് രണ്ട് മൂന്ന് ടെക്സ്റ്റ് അവൈലബിളായിട്ടുണ്ട് ഓക്കേ ഓക്കേ

ആ ഫണ്ട് ഇന്നുതന്നെ അടയ്ക്കണം ഗൂഗിൾ പേ പറ്റില്ല കേട്ടോ നേരെ നമുക്ക് വന്ന് ഏതായാലും രജിസ്റ്റര് ചെയ്ത് ഫണ്ടടയ്ക്കണം ഓക്കേ ആ ഓക്കേ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം പിന്നെ ടെക്സ്റ്റെങ്ങാനും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കില് നമ്മളിവിടെ എൻ്റര് ചെയ്തിട്ടാണല്ലോ തരുന്നത് ഫണ്ടൊക്കെ അപ്പോള് ടെക്സ്റ്റിൻ്റെ പൈസയും കുറച്ച് ഫണ്ടും കൂടെ നമ്മളിങ്ങോട്ട് മേടിക്കും ആ അത് ആ ഫസ്റ്റ് ഡീറ്റെയിൽസ് എഴുതിവെച്ചിട്ടാണല്ലോ നമ്മളിത് ടെക്സ്റ്റ് മേടിക്കുന്നത് ടെക്സ്റ്റ് തരുന്നത് അപ്പോള് തിരിച്ച് ആ അതിനനുസരിച്ച് ഇത് നമ്മള് മേടിക്കേണ്ടി വരും ആ ഓക്കേ